ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് മീനിടമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നൂൽ നൂൽക്കുന്ന ശാലയുണ്ട് അവിടെ നല്ല രീതിയിലുള്ള നൂലുകൾ നൂറ്റ് കയറ്റി അയയ്ക്കുന്ന കാര്യമാണിപ്പം നടന്ന് കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ അടുത്ത് ഒരു നൂല് നൂൽപ്പ് കേന്ദ്രമുണ്ട് അത് പിന്നെ അവിടേയും ലേ ലേ സ്ത്രീകൾ വന്ന് നൂല് നൂൽക്കുന്ന സജീവമായ പ്രക്രിയ കാര്യങ്ങൾ നടന്ന് കൊണ്ടിരിക്കുകായാണ് ഇത് ഇവിടെ പരമ്പരാഗതമായ വസ്ത്രങ്ങളൊന്നും നിർമ്മിക്കുന്ന രീതി ഒന്നും ഇല്ല അവർ ശ്രമിച്ചിട്ടത് വിജയിക്കുന്നുണ്ടോ എന്ന് അറിയാൻ മേല ഏതായാലും അങ്ങനത്തെയൊരു ക കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല നല്ല രീതിയിലുള്ള പല രീതിയിൽ പല കളറിൽ ഉള്ള നൂലുകൾ നൂറ്റ് അത് കയറ്റി വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ട് കൊണ്ടിരിക്കുന്നത്